കൃഷിയ്ക്കും മറ്റു തുടർച്ചയായുള്ള ജലവിതരണം ആവശ്യമുള്ള പദ്ധതികൾക്കും എന്താണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ് പുഴകൾ തടാകങ്ങൾ കിണറുകൾ സമുദ്രങ്ങൾ തോടുകൾ വെള്ളം കെട്ടിനിൽക്കുന്ന കുഴൽക്കിണറുകൾ മഴവെള്ള ടാങ്കുകൾ പ്രദേശത്ത് ജലസേചനമുണ്ടോ മഴവെള്ള സംഭരണികൾ കുഴൽക്കിണറുകൾ കിണറുകൾ ഇതെല്ലാം ഇന്നത്തെക്കാലത്ത് വളരെയധികം കാണപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ജലം നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷിയ്ക്ക് വേണ്ടിയിട്ടാണ് ജലസേചനം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതും കൃഷിയ്ക്ക് തന്നെയാണ് പൂന്തോട്ടം കൃഷി മത്സ്യബന്ധനം എന്നിവയ്ക്കെല്ലാം നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് സസ്യങ്ങൾ വളരാനാവശ്യമായൊരു ഘടകം എന്നു പറയുന്നത് എന്താണ് വളം മണ്ണ് എല്ലാം വേണ്ടതുപോലെത്തന്നെ ആവശ്യമുള്ളൊരു ഘടകമാണ് വെള്ളം എന്നു പറയുന്നത് വെള്ളമില്ലെങ്കിൽ നമുക്ക് കൃഷികൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം ആവശ്യസമയത്ത് സസ്യങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിലൊക്കെ കൃഷിയ്ക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമായുള്ള ചെടികൾ പൂക്കൾ വരുള്ളൂ വിളകളെടുക്കാൻ പറ്റുള്ളൂ പഴങ്ങൾ പച്ചക്കറികൾ ഇവയെല്ലാം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തുവേണം വെള്ളം വേണം ആവശ്യത്തിനു വെള്ളം നമ്മൾ നനച്ചും അല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമുള്ള സംരക്ഷണം വെള്ളംകൊണ്ട് നൽകാനുള്ള സംരക്ഷണങ്ങളെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ ചെടികൾക്കും അല്ലെങ്കിൽ കൃഷികൾക്കെല്ലാം അതിനുള്ള ഫലമുണ്ടാവുള്ളൂ അതിനാണ് നമുക്ക് വെള്ളം ആവശ്യമാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെയെന്നു പറഞ്ഞാൽ വേനൽക്കാലമായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുത്ത വേനലാണ് അപ്പം വെള്ളത്തിനുള്ള എന്താ ചെറിയ തോടുകളും കൈത്തോടുകളെല്ലാം കെട്ടി കല്ലുകൾകൊണ്ട് കെട്ടി അല്ലെങ്കിൽ ചാക്കിൽ മണ്ണ് നിറച്ച് കെട്ടിയിട്ട് വെള്ളം കെട്ടിനിർത്തും ആ കെട്ടിനിർത്തുന്നത് പല പല ഭാഗങ്ങളിൽ മോട്ടറുകൾ വച്ച് പല പല കൃഷിയ്ക്ക് ഇട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുചെയ്യും മോട്ടറ് വച്ച് പമ്പ് ചെയ്ത് എടുക്കലാണ് വെള്ളം ചെയ്യുന്നത് കിണറുകളിലൊക്കെ വേനൽക്കാലമായാൽ വളരെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നാലും ഇതുവരെ അത്ര കൂടുതൽ ക്ഷാമം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാലും വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ എപ്പോഴും വരാറുണ്ട് എന്നാലും കൃഷി ആവശ്യങ്ങൾക്കൊന്നും ഇതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞങ്ങളുടെ ഇവിടെ വലിയ ചാലിയാർ പോലുള്ള വലിയ ആറുകളുണ്ട് തോടുകളുണ്ട് അപ്പം അതിലെല്ലാം വെള്ളം ഉള്ളതുകൊണ്ട് ഇത്രയും നാളത്തെ കൃഷികൾക്കൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കൃഷികളൊക്കെ നല്ല നല്ല രീതിയിൽ നടന്നു വാഴക്കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ വാഴക്കൊക്കെ ഇഷ്ടംപോലെ വെള്ളം അടിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് തോടുകളിൽ വെള്ളം സംഭരിച്ചു വച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടുകൾ ഉണ്ടാക്കി കെട്ടിവച്ചിരിക്കുകയാണ് അതിന് മോട്ടറിന് പമ്പു ചെയ്യുകയാണ് അത് ചെയ്യുന്നത് വെള്ളം വളരെ ആവശ്യമാണ് കൃഷികൾക്ക് വളരണമെങ്കിലും നമ്മൾക്ക് വിളകൾ ലഭിക്കണമെങ്കിലും ഒക്കെ എന്താണ് വെള്ളം ആവശ്യമാണ് വെള്ളത്തിന് ഒരുപാട് സ്രോതസ്സുകൾ ഇന്നുണ്ട് ചിലർ കുഴൽക്കിണറടിക്കും കിണറുകളാണെങ്കിലും ഇപ്പം എല്ലാ വീടുകളിലും കിണറുകളാണ് പണ്ടൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു ഇപ്പം വീടുകളിലെല്ലാം കിണറുകളുണ്ട് ഇപ്പം കൂടുതലായിട്ടും കുഴൽക്കിണറുകൾ അടിക്കുന്നുണ്ട് അതെല്ലാം വെള്ളത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള ഇതാണ് കൃഷിയ്ക്ക് മാത്രം തന്നെയല്ല എല്ലാ ആവശ്യത്തിനും വെള്ളം ആവശ്യമായതുകൊണ്ടാണ്